ഫേസ് ബുക്ക് ധാരാളവും ട്വിറ്റെർ വളരെ കുറച്ചും ഉപയോഗിക്കാറുണ്ട് ഫേസ് ബുക്ക് ഡെയിലി നോക്കാറുണ്ട് എത്രമാത്രം എന്ന് അങ്ങനെ നോക്കിയിട്ടില്ല എന്തെങ്കിലും ഒക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നോക്കാറുണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും കൂടെ ചെലവാക്കുന്നുണ്ടെന്നു തോന്നുന്നു ചില ദിവസം അതിൽകൂടുതലും പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട് പിന്നേ ഫേസ്ബുക്കിൽ കൂടുതലും ഇഷ്ടപ്പെടുന്നത് എന്താ തമാശകളും ചിരിക്കാനും മറ്റും ചിന്തിക്കാനുമുള്ള ചില കാര്യങ്ങളൊക്കെ വരും പിന്നെ അതിൻറ്റാത്തു കൃഷിയെ സംബന്ധിച്ചിട്ട് ധാരാളം കാര്യങ്ങള് എൻ്റെ ഇഷ്ടപെട്ട വിഷയം കൃഷിയാണ് കൃഷിയെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി അറിവുകള് ഇൻഫർമേഷൻ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങള് ഞാന് വിശ്വസിച്ച് നോക്കാറുണ്ട് പിന്നെ ഒരു മനുഷ്യന് ഇഷ്ട ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് ലോകത്തിലൊന്നും ഇല്ലല്ലൊ ഓരോരുത്തര് ചിലകര്യങ്ങള് ഇടുമ്പോൾ ഇത് വേണ്ടായിരുന്നു ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് കലഹങ്ങളും ചുമ്മാ ഇപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ മറ്റുള്ളവരെ കുറ്റം പറച്ചിലും വിമർശിക്കലും കൊണ്ട് ഗുണമില്ലാത്ത രീതീയിൽ ഉള്ള വിമർശനം അതൊന്നും വേണ്ടാന്ന് തോന്നിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ കൃഷിക്കും എന്താ ചിരിക്കാനും ചിന്തിക്കാനുവുള്ള പോർഷൻ വളരെ താല്പര്യമായിട്ട് തോന്നിയിട്ടുണ്ട്